ഹലോ ആ ഇതാരാണ് ആ ഏതാണ് വേണ്ടത് ഏതാണ് ഐറ്റം ആ ഇപ്പം കിലോയ്ക്ക് മുപ്പത് രൂപയാണ് ഇത് ഏത് ഡേറ്റിന് വേണ്ടിയിട്ട് ആണ് എപ്പോഴത്തേക്കാണ് ഇരുപത്തഞ്ചിന് വേണം ഇരുപത് കിലോ അല്ലേ ആ റേറ്റ് മുപ്പത് രൂപയാണ് ആ ഒരു കിലോയ്ക്ക് മുപ്പത് രൂപയാണ്

ആ നമ്മളത് ഇത് നാടൻ തക്കാളിയാണ് നല്ല ഫ്രഷ് തക്കാളിയാണ് ആ കീടനാശിനി അങ്ങനെയൊന്നും ഇല്ലാതെ ജൈവവളമൊക്കെ ഇട്ടാക്കുന്നതാണ് അതുകൊണ്ടാണ് മുപ്പത് രൂപ ചിലപ്പോൾ അവിടുത്തത് കീടനാശിനിയൊക്കെ തളിച്ചത് അത് നമ്മുടെ ആരോഗ്യത്തിന് മോശമല്ലേ അപ്പം അതുകൊണ്ടായിരിക്കും മുപ്പത് രൂപ ആ ആ ഇരുപത്തഞ്ചാം തീയതിക്കല്ലെ നമുക്ക് നോക്കാം ആ പിന്നെ വേറെയേതെങ്കിലും ഐറ്റം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടോ തക്കാളി അല്ലാതെ ആ സാമ്പാർ ആ അത് എത്ര പേർക്കുള്ളതാണ് ആ അതെഴുതി ആ ഓ ഇതിപ്പോൾ നമ്മൾ സാധങ്ങൾ അവിടത്തേയ്ക്ക് എത്തിക്കണം എന്നാണോ കടയിൽ വന്നിട്ട് വാങ്ങുമോ ആ ആ ശരി ആ ഇതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി എത്ര ഡീറ്റെയിൽസ് ഇതൊക്കെ ഈ നമ്പറിലേക്ക് ഏത് സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളത് ഇതിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി ആ ശരി ശരി